ഒരു കാറെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഫുൾ ഓപ്ഷൻ മതി കേട്ടോ

നല്ല പെർഫോമൻസ് ഉള്ളതേതാണ്

ആ ഓക്കേ അപ്പോൾ

ആ ഒക്കെ ഓക്കെ ആ അല്ല എമൗണ്ട് എത്രയൊക്കെയാണ് വരിക അപ്പം

ആ അപ്പോൾ ഡൌൺ ഇ എം ഐ അങ്ങനെ എന്തെങ്കിലും ഫെസിലിറ്റിയുണ്ടോ ലോണൊക്കെ എടുക്കാൻ പറ്റുമോ

ആ ഓക്കേ

മൈലേജിൻ്റെയൊക്കെയോ

മാക്സിമം എത്ര കിട്ടുമായിരിക്കും ആ കളറൊക്കെ എല്ലാമുണ്ടോ ഈ ഗോൾഡൻ ടച്ച് വരുന്നതുണ്ടോ ഒരു

ആ ഇപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ എടുക്കാൻ പറ്റുമായിരിക്കും നമുക്ക്

നമ്മൾ ഷോറൂമിൽ വന്നിട്ട് കളക്ട് ചെയ്യേണ്ടി വരുമോ അല്ല അല്ല വീട്ടിൽ ആ ആ ഓക്കേ ആ ഒക്കെ ഓക്കെ